ഞമ്മൾ പൊതുവായിട്ടുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അത് നമ്മള് കൂടുതലായിട്ട് ഫേസ്ബുക്കിലൊക്കെ നമുക്ക് എല്ലാ ഭാഗത്തുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള കാര്യങ്ങളറിയാൻ പറ്റും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ ഇപ്പോൾ ഓരോ ന്യൂസുകളും ഓരോ ഇൻസിഡന്റും ഓരോ സ്ഥലത്തിലുള്ള സംഭവങ്ങളൊക്കെ അറിയുന്നത് അത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണ് എന്നു വെച്ചാൽ ഞമ്മൾക്ക് ഒരു കാലാവസ്ഥ വ്യതിയാനങ്ങളറിയുന്നത് അതൊക്കെ പിന്നെന്തെങ്കിലും കപടങ്ങൾ അപകടങ്ങൾ ഉള്ളത് അങ്ങനത്തെ പ്രശ്നങ്ങള് സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോൾ എല്ലാ രീതിയിലും അറിയുന്നത് ഫേസ്ബുക് വാട്സപ്പൊക്കെ വഴിയാണ് നമ്മൾ വേഗം ഷെയർ ചെയ്തെത്തുന്നത് പിന്നെ അപകടങ്ങൾ മാത്രമല്ല നമക്കൊരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുമ്പോൾ വാട്സാപ്പിലൂടേയും ഫേസ്ബുക്കിലൂടേയും ഒക്കെ ഷെയർ ചെയ്ത് സോഷ്യൽ മീഡിയ വഴിയാണ് സോഷ്യൽ മീഡിയ വഴി പഴയപോലെ അതുപോലേതന്നെ നല്ല നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് എന്താ പറയുക മറ്റു ഇതിൽ നടക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഓരോരുത്തരുടെ ആവശ്യങ്ങള് ഓരോ രോഗ പ്രശ്നങ്ങളുള്ളവർക്ക് അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി കുറേ നടക്കുന്നുണ്ട്